ട്രക്കിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേക ഒരു വേറിട്ടൊരനുഭവമാണ് അത് പൂർത്തിയാക്കുമ്പോള്ളൊരു ഉള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് കാ കാര്യം നമുക്കറിയാം ട്രക്കിങ് കാര്യം നമുക്കറിയാം ആ ഒരു യാത്ര പോകുമ്പം അതിലെ കാഴ്ചകൾ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തും നമുക്ക് നല്ല നല്ല പുതിയ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും എന്താണ് അതിലെ കാഴ്ച്ചകളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണേൽ പറയുന്നതായിരിക്കും നല്ലത് കാര്യം ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അഡ്വഞ്ചറസ് ആൻറ്റ് കംഫോർട്ടബിൾ ആയിരിക്കും നമുക്ക് എന്താ നമുക്ക് മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്താ എല്ലാ വിഷമങ്ങളും മറന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ടായിരിക്കും അവയെല്ലാം മറന്നാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഒരുരു യാത്രക്ക് പോകുന്നത് അപ്പം ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തികച്ചും ശൂന്യമാണ് ആ ഒരു മാനസികാവസ്ഥയും നമ്മളെങ്ങനെ ബാക്കിയുള്ളതിനെ കാണുന്നു എന്നതിൻ്റെ എന്നതിൻ്റെ ബേസിസിലിരിയ്കും ഒരു അന്നത്തെ ഡേയിലെ സന്തോഷവും ബാക്കിയുള്ള കാര്യങ്ങളൾ എല്ലാം എന്നെ സംമ്പന്തിച്ച് തീർച്ചയായിട്ടും ഈ ട്രക്കിംഗ് പൂർത്തിയാക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം വളരെയധികം എനിക്ക് ആനന്ദം പകർന്നിട്ടുണ്ട്